കഥകളി ഒരു തനതായ കേരളത്തിൻ്റെ ഒരു തനതായ കലാരൂപമാണ് കഥകളിയെന്നു പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ചുട്ടികൾ വിവിധയിനം ചുട്ടികൾ കാരണവും ഇതിൻ്റെ വേഷം കാരണവും ഇതിൻ്റെ വസ്ത്രാലങ്കാരം കാരണവും ഇതിൻ്റെ ആടയാഭരണങ്ങൾ കാരണമൊക്കെ ഒത്തിരി പ്രസിദ്ധി നേടി കൈ വരിച്ച ഒരു കലാരൂപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതു പോലെതന്നെ രാമനാട്ടം എന്നുള്ള കല ഉരുത്തിരിഞ്ഞ് വന്നതാണ് കഥകളിയെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇതിലോട്ട് ഇത് ഈയൊരു കഥകളിയ്ക്ക് ലോക പ്രസിദ്ധി നേടി കൊടുക്കുന്നതിനായി ഒത്തിരി കലാകാരന്മാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ വിവിധയിനം ചുട്ടികളെന്നു പറയുമ്പോൾ എപ്പോഴും മെയിനായിട്ട് നമ്മളുപയോഗിക്കുന്നത് പച്ച പച്ചയെന്നു പറയുന്നത് രാജാക്കന്മാരുടെ വേഷത്തിനെ കാണിക്കാനായിട്ടാണ് പച്ച എന്നുള്ളൊരു അലങ്കാരത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കരിയെന്നുള്ളൊരു അലങ്കാരം പ്രധാനമായും കാട്ടാളന്മാരുടെ വേഷങ്ങൾ കാണിക്കാനാണ് കഥകളിയിൽ കരി ഉപയോഗിക്കുന്നത് കത്തിയെന്നുള്ള വേഷം വേഷത്തിനും അതിൻറ്റേതായ പ്രാധാന്യം തന്നെയാണുള്ളത് കത്തിയിലും നമ്മൾ ഓ ആ കലാകാരന്മാരെ അവരുടെ ആ ഒരു വേഷത്തിനനുസരിച്ച് അനുയോജ്യമായ രീതിക്കാണ് അണിയിച്ചൊരുക്കുന്നത് അത് കൂടുതലും നമ്മുടെ കാട്ടാളന്മാരെ കാണിക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ താടി മൂന്നു തരത്തിലുള്ള പ്രധാന താടികളാണുള്ളത് വെള്ള ചുവപ്പ് കറുത്ത താടി ഇങ്ങനെയാണ് താടി വേഷം വരുന്നത് മിനുക്ക് പൊതുവേ നമ്മൾ കഥകളിയിൽ സ്ത്രീകളെ അണിയിച്ചൊരുക്കാനാണ് മിനുക്ക് എന്നുള്ളൊരു ചുട്ടി നമ്മളുപയോഗിക്കുന്നത് അതു താരതമ്യേന കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കര ഒരു രീതിയാണ് എന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റും പിന്നെ പഴുപ്പ് പഴുപ്പ് ദേവകളെ നമ്മൾ കാണിക്കുന്നതിനായിട്ടാണ് പഴുപ്പ് എന്നുള്ളൊരു വസ്തു ഒരു അലങ്കാര രീതി നമ്മളുണ്ടാക്കുന്നത് അതു കൊണ്ടു തന്നെ ഓരോ ചുട്ടിയ്ക്കും അതിൻറ്റേതായ പ്രധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ ചുട്ടി കുത്താനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണെങ്കിൽപ്പോലും പ്രകൃതിദത്തമായ കാര്യങ്ങളായിരുന്നു പുരാതന കാലത്തുപയോഗിച്ചിരുന്ന എന്നാൽ ഇപ്പോൾ ഒത്തിരി കെമിക്കൽസ് ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ആ പക്ഷെ എങ്കിൽക്കൂടി കരകൗശല രംഗത്ത് ഇതിനെ പുനഃസൃഷ്ടിക്കാനായിട്ട് ഒത്തിരി എഫേർട്സ് ഉണ്ടാകുന്നുണ്ട് കഥകളിയെന്നു പറയുമ്പം തന്നെ നമുക്കറിയാം എത്രത്തോളം കോമ്പ്ലിക്കേറ്റഡായിട്ടുള്ള ഒരു ഒരു അലങ്കാര രീതിയാണത് അപ്പം അതിനെ നമ്മൾ കരകൗശല രീതിയ്ക്ക് പുനഃസൃഷ്ടിക്കുമ്പോഴത്തേയ്ക്കും അതിന് അതിൻറ്റേതായ പാടുകളുണ്ട് പിന്നെ ഈ പറഞ്ഞതു പോലെതന്നെ പരമ്പരാഗതമായ സാധനങ്ങളുപയോഗിച്ച് ഉണ്ടാക്കുക എന്നുള്ളതിൽ നിന്ന് ഇപ്പോൾ ഒത്തിരി കെമിക്കൽസിൻ്റെ ഉപയോഗം വന്നതും ഈയൊരു ഏരിയയിൽ വരുന്നൊരു വലിയൊരു വെല്ലുവിളിയാണ് പിന്നെ ഇത് ഇത്രയും പെർഫെക്ഷനോടെ ചെയ്യുകയെന്നുള്ളത് കലാകാരൻമാർ നേരിടുന്ന ഒരു പ്രധാന ടാസ്ക് തന്നെയാണ്